ഞങ്ങളുടെ അടുത്ത് ഈയിടെ രണ്ടു വീട്ടുകാർ തമ്മിൽ ഭയങ്കര തർക്കമായിരുന്നു അവരുടെ കയ്യാലെ ഇറങ്ങിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് അടുത്തവീട്ടുകാർ ആയിട്ട് ഭയങ്കര വഴക്കൊക്കെയായിരുന്നു അങ്ങനെ ഭയങ്കര കയ്യാങ്കളിയായി അങ്ങനെ അവർ പിന്നെ അടുത്തുള്ളവരെല്ലാം കൂടെ ഇടപെട്ട് എല്ലാം സമരിയാക്കി കുറച്ചത് കഴിഞ്ഞിട്ട് പിന്നേയും വഴക്കായി വഴക്കായിട്ട് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് വന്ന് പഞ്ചായത്ത് പഞ്ചായത്തുകാർ വന്നു അതിനെ സമരിയാക്കാനായിട്ടെല്ലാം നോക്കി പിന്നേയും അവർ കയ്യാങ്കളിയായി ഈ അങ്ങനെ ആ അവർ മുന്നോട്ടുപോയി കയ്യാലയുടെ പ്രശ്നം പറഞ്ഞ് അവരിപ്പോഴും പിണങ്ങിയിരിയ്ക്കുകയാണ് ഏതെങ്കിലും വീട്ടുകാരാണെന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാര കാര്യത്തേച്ചൊല്ലിയാണ് ഈ വഴക്ക് പിടിക്കുന്നത് അത് പോട്ടേയെന്ന് വെക്കാനായിട്ട് ഇന്നത്തെക്കാലത്തെ ആർക്കും ഒരു മനസ്സുണ്ടാവത്തില്ല കാരണമൊരു ഒരു ഒരുതരി സ്ഥലത്തിനായിരിക്കും ഈ വഴക്കുണ്ടാക്കുന്നത് കാരണം ആ സലത്തിനു പോലും വിട്ടു ആ സ്ഥലം പോലും വിട്ടുകൊടുക്കാനുള്ള മനസ്സിന്നത്തെ മനുഷ്യർക്ക് ഇല്ല ആ അതുപോലെയൊക്കെ തന്നെ അവർ വഴക്കിന് വഴക്കങ്ങു തുടങ്ങും അതുകാരണം രണ്ടു വീട്ടുകാർ തമ്മിലുള്ള വഴക്കുകളാണുണ്ടാവുന്നത് വഴക്കുകളാണുണ്ടാകുന്നത് രണ്ടു വീട്ടുകാർ തമ്മിൽ ആ തർക്കമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വഴക്കുപിടിച്ച് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലീസിൽക്കൊണ്ടുപോയി കേസ് കൊടുക്കുകയോ എന്നാണെന്ന് വെച്ചാൽ ചെയ്യാമായിരുന്നു നിസ്സാരമൊരു കാര്യത്തിനാണ് ഈ ഈ ഈ പ്രശ്നം ഉണ്ടാവുന്നത് അവർ പോലീസിൽ കമ്പ്ലൈന്റ് ചെയ്യാനായിട്ടൊന്നും പോയൊന്നുമില്ല എന്നാൽ പോലീസിൽ കമ്പ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും പഞ്ചായത്തുകാരെല്ലാംകൂടി വന്ന് അവരെ പറഞ്ഞു തിരുത്തി അങ്ങനെ അവർ മുന്നോട്ടുപോയി പിന്നേ എന്നാൽ അയൽപക്കക്കാരും എല്ലാംകൂടെ കൂടി അവരെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ അവർ മുന്നോട്ടുപോയി ചെറിയ ഒരു കാര്യമാണ് ഈ വലിയ കാര്യത്തെ ഇതാക്കുന്നത് നിസ്സാരമൊരു കാര്യമാണ് ഒരു ശകലം കയ്യാല കെട്ടിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഇറങ്ങി എന്നെന്നൊരു ശകലം ഒരു നുള്ളിടയ്ക്ക് ഇറങ്ങിപ്പോയതാണ് ഈ വലിയ പ്രശ്നമാക്കി തീർത്തിരിക്കുന്നത് അങ്ങനെ അവർ വലിയൊരു വഴക്കിലായി ഇന്നത്തെക്കാലത്ത് ക്ഷമിക്കാനായിട്ടുപോലും മനുഷ്യർക്ക് കഴിയത്തില്ല അതാണ് വരുന്ന കുഴപ്പവേ ഇന്ന് ഇന്ന് മനുഷ്യർക്ക് ക്ഷമയെന്ന് പറയുന്നതേ ഇല്ല അത് എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലത് ആളിക്കത്തിക്കാനുംകൂടി ചില മനുഷ്യർ നോക്കും അയ്യോ ആണ്ടെ അവർ ആണ്ടേ ഇറക്കിയാണ് കെട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് പറയാനായിട്ടും കുറേപ്പേർ അങ്ങനെ അങ്ങനെ കുറച്ചു മനുഷ്യർ അങ്ങനേയും ഉണ്ടാവും അപ്പോൾ അവർക്ക് ആ ഒരു ഇത് വരുമ്പോഴത്തേക്കുമാണ് കൂടുതലും പ്രചോതനം വരുമ്പോഴത്തേക്കുമാണ് കൂടുതലും ഇവരോട് വഴക്ക് പിടിക്കാനായിട്ടൊക്കെയാണെന്ന് പറഞ്ഞാലും തോന്നുന്നത് അല്ലാതെ സ്വമനസ്സാലവർ ചിലപ്പം വഴക്കു പിടിക്കാനായിട്ട് വന്നതല്ലായിരിക്കും ഇങ്ങനെ ആൾക്കാരെല്ലാം പറയുകയും പിന്നെ അങ്ങനെ അങ്ങനെയും ഉണ്ടാകാം അങ്ങനെയും വഴക്കുണ്ടാകാം പിന്നെ അല്ലാതെയും വഴക്കുണ്ടാകാം ഈ രണ്ട് ഇതിലാണ് വഴക്കുണ്ടാകുന്നത് അങ്ങനെ രണ്ടു കൂട്ടരുംകൂടി തമ്മിൽ സെരമായി പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് സൊരുമയാക്കി അവരെ രണ്ടുപേരേയും രണ്ടു ഇതാക്കി സൊരുമയാക്കി വിട്ടു